ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞത് നമ്മള് വിനോദവൃത്തിയായി കൊണ്ടുനടക്കുന്ന ഒന്ന് മാത്രമല്ല നമുക്ക് അതില്നിന്ന് കിട്ടുന്ന ഓരോ ഓരോ മൊമെന്റും ക്യാപ്ച്ചർ ചെയ്യുമ്പം കിട്ടുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് നമ്മളിപ്പം എന്താ പറയുന്നത് ട്രാവലിങ് ഫോട്ടോഗ്രാഫി ആയാലും അല്ലെങ്കില് ഒരു വെഡിങ് ഫങ്ഷന് കവറ് ചെയ്യുമ്പഴായാലും അല്ലെങ്കിലൊരു മോഡലിംഗ് ആകുമ്പോഴും നമ്മള് നമ്മൾ എന്താണോ കാണുന്നത് അതിനെ ക്യാ ക്യാപ്ച്ചർ ചെയ്യാനും അതിനെ അത് അതുപോലെതന്നെ അതുപോലെതന്നെ അതിനെ ഒപ്പിയെടുക്കാനും ഒരു ലൈറ്റിങ്ങ് ഫോട്ടോഗ്രാഫി ഇത് നമുക്ക് നമ്മളെടുക്കുന്ന ഫോട്ടോസ് നമുക്ക് കാണുമ്പം കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് പിന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളില് പോകുമ്പോൾ തന്നെ ആയാലും അവിടുത്തെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തുവെച്ചു കഴിഞ്ഞാലും നമ്മളെത്ര വര്ഷം കഴിഞ്ഞാലും ശരി തന്നെ നമുക്ക് അത് കാണാനും അല്ലെങ്കില് നമുക്ക് നമുക്ക് ഓർത്ത് ഓര്ത്തെടുക്കാന് പോലും കഴിയുന്ന നമുക്ക് ഓര്മ്മയില് സൂക്ഷിക്കാന് പറ്റുക എന്ന് പറയുന്നത് ഈ ഫോട്ടോഗ്രാഫി മാത്രമാണ് നമ്മള് ഇപ്പം ഒരു യാത്ര പോയാലും ശരി തന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ഒരു ഫങ്ഷന് നടക്കുമ്പോൾ ആയാലും ശരിതന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തുവെച്ചാല് അത് എത്ര വര്ഷം കഴിഞ്ഞാലും നമുക്കത് കാണാന് പറ്റും അതേസമയം നമ്മള് അത് കണ്ട് വെറുതെവിട്ട് കഴിഞ്ഞാല് അതായത് നമ്മളൊന്നും ചെയ്യുന്നില്ല കണ്ടു ജെസ്റ്റ് അത് അവിടെ കളഞ്ഞു അതവിടെ വിട്ടു എങ്കില് പിന്നീട് അത് നമുക്കൊന്ന് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാല് അത് വെറുതെയാണ് ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞത് നമ്മള് ഈ നമ്മള് എന്താ പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങള് ചിന്തിച്ചെടുക്കാന് അതായത് ചിന്തിച്ചെടുക്കാന് മാത്രമല്ല നമുക്കതിനെ കാണാന് ഏറ്റവും കൂടുതല് സഹായിക്കുന്നത് ഫോട്ടോഗ്രാഫി മാത്രമാണ് പിന്നെ

പല ആംഗിളിൽ നിന്നും പല മുമെന്സ് ഇപ്പോൾ വെഡിങ്ങിന്റെ കാര്യം തന്നെ ആയാൽ ഒരു വെഡിംഗ് ഫോട്ടോഗ്രാഫി കവറ് ചെയ്യുമ്പോഴ് അതില് ഓരോ ഇമോഷന്സും അല്ലെങ്കില് അതിലോരോ ഇമോഷന്സും ഉണ്ടാകും ചിലപ്പം ഹാപ്പിനെസ് ആവാം ചിലപ്പം സാഡ് ആവാം അങ്ങനെ ഒരുപാടൊരുപാട് ഇതുണ്ട് ഇതെല്ലാം ആ ആ മൊമെന്റ് അതുപോലെ നമ്മള് ക്യാപ്ച്ചറ് ചെയ്താല് നമുക്ക് അത് എത്ര എത്രവര്ഷം കഴിഞ്ഞാലും ശരി തന്നെ ആ നമ്മുടെ ആ ഒരു ഫീലിങ്ങ്സ് നമുക്കത് പിന്നേയും കാണുമ്പം നമുക്ക് നമ്മള് അന്ന് അന്ന് സന്തോഷിച്ച അതേ ഒരു രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചുപോകാന് പറ്റും പിന്നെ ദിനവൃത്തി ആയിട്ട് കൊണ്ട് നടക്കുക എന്നുപറഞ്ഞാല്

ഫോട്ടോഗ്രാഫി ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ട് പക്ഷെ അവര്ക്ക് ഇതിനെപ്പറ്റി അറിയുന്നില്ല ഇതിനെപ്പറ്റി അറിയുന്നില്ല എന്ന് പറഞ്ഞാല് അവരും ഇതുപോലെ ഒരു ക്യാമറ എടുത്ത് അവര് അവര്ക്ക് അവരെന്താണോ കാണുന്നത് ആ ആ കാണുന്ന സാധനം അതുപോലെതന്നെ ക്യാപ്ചർ ചെയ്ത് നമ്മള് സൂക്ഷിക്കുകയാണെങ്കിൽ അത് പിന്നീടത് കാണുമ്പം ഉണ്ടാകുന്ന ഒരു ഫീലിങ്ങ്സ് അത് ഇതുവരേയും മ എനി എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവര്ക്ക് മനസിലാകുന്നില്ല എന്നേ എനിക്ക് പറയാന് പറ്റത്തുള്ളൂ ഓരോ ഓരോ ആൾക്കാരുടെയും കാഴ്ച്ചകളും അല്ലെങ്കില് ഓരോ ആഴ്ച്ച ഓരോ ആൾക്കാരുടെയും ചിന്താഗതിയും വളരെ വ്യത്യാസമാണ് ഇപ്പം ഞാന് കാണുന്നതായിരിക്കത്തില്ല മറ്റൊരാള് ക കാണുന്നത് അതിപ്പം ഫോട്ടോഗ്രാഫിയിലായാലും ശരിതന്നെ നമുക്ക് അങ്ങനെ പറയാന് പറ്റത്തുള്ളൂ കാര്യം ഇപ്പം എന്റെ കണ്ണ് കാണുന്ന ഒരു കാഴ്ച്ച ആയിരിക്കത്തില്ല മറ്റൊരാള് കാണുന്നത് എല്ലാവരും എന്റെ ഇതില് പറയ എല്ലാവരും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടണം എന്നേ ഞാന് പറയത്തോള് കാര്യം നമുക്ക് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഓര്മയാണ് നമുക്ക് പിന്നീട് ഇപ്പം കഴിഞ്ഞുപോയ ഒരു കാര്യം പിന്നീട് നമുക്കൊന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത് എടുക്കാന് പറ്റത്തില്ല അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ ഒരു വെഡിങ്ങായാല് ഇപ്പം നമ്മള് മിന്നുകെട്ടുന്ന ഒരു ചടങ്ങ് അത് നമ്മൾ അന്നേരം കഴിഞ്ഞുപോയി അത് കഴിഞ്ഞുപോയി അത് പിന്നീട് ജീവിതത്തില് പിന്നീടത് സംഭവിക്കുന്ന കാര്യമല്ല അപ്പം അന്നരം നമുക്ക് ആ മൊമെന്റ് വീണ്ടും നമുക്കത് കാണണം എങ്കില് ഫോട്ടോഗ്രാഫി മാത്രമാണ് അല്ലെങ്കില് ആ ഫോട്ടോഗ്രാഫ്സ് മാത്രമാണ് നമുക്കൊര് ആശ്രയം അല്ലാതെ നമ്മളിപ്പം കണ്ണില്കണ്ട കാഴ്ച്ച കുറച്ചുനാള് കഴിയുമ്പം നമ്മളത് മറന്നുപോകും പിന്നെ അതുപോലെതന്നെ ഈ ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ചിടത്തോളം ഈ വെഡിങ്ങോ അല്ലെങ്കില് മോഡലിങ്ങോ അങ്ങനെ അതുമാത്രമല്ല ഒരുപാട് ഫോട്ടോഗ്രാഫി ഉണ്ട് ഒരുപാട് ഫോട്ടോഗ്രാഫി ഉണ്ട് അപ്പോൾ നമ്മള് ഫുഡിന്റെ ഫോട്ടോ വരെ നമ്മള് ഇപ്പോൾ ക്യാപ്ച്ചെറ് ചെയ്യുന്നുണ്ട് കാര്യം അവര്ക്ക് ഓരോ പ്രൊമോഷന്സാണ് ഇപ്പം ഒരു ബിസ്നെസായി തന്നെ മാറി എന്ന് വേണമെങ്കില് പറയാം ഇന്ന് ഒട്ടനവധി ഒരുപാട് ഒരുപാട് ചെറുപ്പക്കാര് ഈ ഒരു ഫീല്ഡിലോട്ട് ഈ ഒരു ഫീല്ഡിലോട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്താ അത് ഇതിലുള്ള തൊഴില് സാധ്യത തന്നെയാണ് പിന്നെ ഈ ഫോട്ടോഗ്രാഫി ഇപ്പോൾ പഠിപ്പിക്കാൻ പഠിക്കാൻ ആയിട്ട് ഒരുപാട് കോഴ്സുകള് തന്നെ വന്നിട്ടുണ്ട് ഈ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനും ഒര് ഒരുപാട് ഇന്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഡിപ്ലോമ കോഴ്സുകള് വരെ ആയിട്ടുണ്ട് അപ്പം അവിടുന്ന് പഠിച്ചിറങ്ങി ഒരു ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിൽ നമ്മള് ജോലിക്ക് പോകുക ഇന്റെര്വ്യൂ അറ്റൻഡ് ചെയ്യുക അതുപോലെതന്നെ ഈ മീഡിയയിൽ നമ്മൾ ഇപ്പോൾ ഒരു ഈ ഫോട്ടോഗ്രാഫിയോടുള്ള ഇഷ്ടം കൊണ്ടുതന്നെയാണ് നമ്മള് ഫോട്ടോഗ്രാഫി ജേണലിസം വരെ പഠിക്കുന്നുണ്ട് അപ്പം ഈ മീഡിയയിൽ കയറാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാടൊരുപാട് തൊഴിലവസരങ്ങള് കിട്ടുന്നുണ്ട് എന്തിന് നമ്മള് സിനിമവരെ ഷൂട്ട് ചെയ്യാന് പറ്റുന്ന അവസരങ്ങള് വന്നിട്ടുണ്ട് അപ്പം ഈ നമ്മളെന്താണോ കാണുന്നത് അതിനെ നമ്മള് സേവാക്കി വെക്കുന്ന ഒരേയൊരു കാര്യം ഫോട്ടോഗ്രാഫി തന്നെ ആണ്